പാട്ടെന്നു പറയുന്നത് പല ഭാഷകളും പല രീതികളും പല ലാംഗ്വേജ് എന്നാ പറയ്യാ പല ധ്വനീലും പല ഓരോ ഭാഷകളിലും പാട്ടുകളുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്നു ചോദിച്ചാൽ നമ്മളിപ്പോൾ എവിടെ പാടാൻ പോയാലും അവരിപ്പോൾ ഓരോ ലാംഗ്വേജ് നമുക്ക് പറയും നമ്മളത് കറക്ട് അതിൻ്റെ പല്ലവി അനുപല്ലവി ആ സംഗീതത്തിൻ്റെ ആ താളത്തിന് അനുസരിച്ച് ചേർന്ന് പിടിക്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് താളം ഓക്കെ നല്ലോണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം പാടാൻ പറ്റും നമ്മുടെ സൗണ്ടും അതുപോലെത്തന്നെ നല്ല വൃത്തിയുള്ള സൗണ്ടാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പാടി എത്താൻ പറ്റും അതുപോലെത്തന്നെ നമ്മളിപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നെന്ന് ചോദിച്ചിണ്ടേൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ഫസ്റ്റ് നമുക്ക് ഇത് പാടുമ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല പക്ഷേ നമ്മളത് പാടി പാടി നമ്മൾ പ്രാക്റ്റീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സിംപിളായി നമുക്ക് പാടാൻ പറ്റും അതിപ്പോൾ ഓരോ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ് ചിലപ്പം നമുക്ക് നമ്മുടെ മല ലാംഗ്വേജ് മലയാളമായത് കൊണ്ട് നമുക്ക് വേറെ സ്ഥലത്തു നിന്ന് നമുക്ക് പാടാൻ പറ്റിന്ന് വരില്ല പക്ഷേ നമ്മളത് ശീലിക്കണം അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ധ്വനിയിൽ നല്ല പല ഭാഷകളിൽ ഒക്കെ നമുക്ക് പാടാൻ വേണ്ടി പറ്റും അങ്ങനെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയാ നമ്മൾ എപ്പോൾ പാടി എത്തണോ നമ്മൾ നല്ല ഉയരങ്ങളിലോട്ട് എത്തും ഇതൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്